ഈ അടുത്ത വർഷങ്ങളില് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നല്ല രീതിയിൽ വളരുകയും വികസിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വളർച്ചയ്ക്ക് കാരണമാകുന്ന പ്രധാന കാര്യങ്ങൾ എന്നു പറയുന്നത് കയറ്റുമതി ഇറക്കുമതി എന്നൊക്കെയാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് ഇതുപോലെ ഇൻ ഇൻറ്റർനെറ്റ് ബാങ്കിങ്ങ് ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇതൊക്കെ സാമ്പത്തികമേഖലയെ സഹായിച്ചിട്ടുണ്ട് ഒരു രീതിയിൽ പറഞ്ഞാല് ആളുകളെ വളരെ സഹായിക്കുന്ന ഇത് കാര്യമാണ് ഇൻറ്റർനെറ്റ് ബാങ്കിങ്ങ് ഡിജിറ്റൽ പേയ്മെൻറ്റുമൊക്കെ കാരണം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ബിൽ പേയ്മെൻറ്റ്സ് ആണെങ്കിലും എല്ലാം അതുപോലെ ബാങ്കിങ്ങ് സൗകര്യങ്ങളെല്ലാം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുപയോഗിക്കാന് കഴിയുന്നുണ്ട് അങ്ങനെ നോക്കിയാലും ഇൻറ്റർനെറ്റ് ബാങ്കിങ്ങും ഡിജിറ്റൽ പേയ്മെൻറ്റും നല്ല രീതിയിലപ്പോള് കൂടുതൽ കൂടുതല് ഇപ്പോള് ഈ ഓൺലൈൻ ഷോപ്പിങ്ങ് ഒക്കെ ഡിജിറ്റൽ പേയ്മെൻറ്റും ഒക്കെ ഉള്ളതു കൊണ്ടാണ് നമുക്കതൊക്കെ ചെയ്യാൻ സാധിക്കുന്നെ അതൊക്കെ സാമ്പത്തിക മേഖലയെ ഇതൊക്കെ നല്ലരീതിയിൽ സഹായിച്ചിട്ടുണ്ട്